ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ കുത്തി ലെവലെന്ന് പറഞ്ഞ ആയുർവേദ ശാലയുണ്ട് എല്ലാവരും രോഗ മുക്തി മാറാൻ വേണ്ടി അവിടെയാണ് വരാറുള്ളത് പരമ്പരാഗതമായ ചികിത്സ ചികിത്സയാണ് അവിടെ ഉള്ളത് പിന്നെ ദൂര ദേശത്തിൽ നിന്ന് തന്നെ ആളുകൾ അവിടെ വരാറുള്ളതാണ് കാൽ കെട്ടി വച്ച് പച്ചമരുന്നുകളെല്ലാം അവരുടെ ശരീരം ശരീരത്ത് വച്ച് ഒക്കെയാണ് അവിടെ ചികിത്സിക്കുന്നത് കുറച്ച് സമയം കൂടതൽ രണ്ട് മൂന്ന് മാസം എടുത്ത് ആയാലും അവരുടെ അസുഖങ്ങളെല്ലാം മാറാറുണ്ട് പിന്നെ എന്താണ് എല്ലാവർക്കും അവിടെ ചെല്ലുമ്പോഴൊക്കെ ഒരു സമാധാനവും പിന്നെ എന്താണ് വേദനകൾ ഒക്കെ മാറും എന്നുള്ളൊരു വിശ്വാസത്തോട് തന്നെയാണ് അവിടെ ചെല്ലണത് അവർക്ക് കൂടുതൽ നല്ല റിവ്യൂ ആണ് അവിടെ ഉള്ളവർക്ക് കിട്ടുന്നത് പിന്നെ ഓരോ പച്ചമരുന്നും ഓരോന്ന് എല്ലാം അവർ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയി അത് പറിച്ച് അത് അരച്ചൊക്കെയാണ് ഒരോരു അവർ അവരുടെ ശരീരത്തേക്ക് വച്ചു കൊണ്ടിരിക്കുന്നത്